മിനിഞ്ഞാന്ന് ഞാനൊരു ഡ്രസ്സ് ഓഡറ് ചെയ്തിരുന്നേ ആ ചുരിദാറാണ് അത് ഓഡറ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് എനിക്ക് അല്ല വേറൊരാൾക്കായിരുന്നു അത് ഞാൻ ഓഡറ് ചെയ്തത് അയാളുടെ സൈസ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എനിക്കത് ഇപ്പോൾ അത് സൈസ്സ് കുറഞ്ഞതാണ് ഞാനത് ഓഡറ് ചെയ്തത് അതുകൊണ്ട് ഞാനത് വേണ്ടായെന്ന് വെക്കുകയാണ് അത് റദ്ദാക്കണമെനിക്ക് അപ്പം അത് ആൾറെഡീ അത് ഷിപ്പിങ്ങിലായോ ഇല്ലെങ്കിൽ അത് അങ്ങ് ക്യാൻസലാക്കണം എനിക്കത് തുടരാൻ താൽപ്പര്യമില്ല ഇത് ഈ സൈസിന്റെ ഒരു പ്രശ്നമുണ്ട് അതിങ്ങ് വന്ന് കഴിഞ്ഞാൽപ്പിന്നെ നിങ്ങളത് തിരിച്ചെടുക്കത്തില്ലല്ലോ അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടാണ് അത് അവളുടെ സൈസ് ഞാനൊന്ന് ഊഹിച്ച് പറഞ്ഞതായിരുന്നു പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ശരിയല്ല അവൾക്ക് ഫിറ്റാകത്തില്ല അവൾക്ക് നല്ലപോലെ വണ്ണം വച്ചു അപ്പം ഇനി എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നിങ്ങളാ ഓഡറ് റദ്ദാക്കണേ അതുകൊണ്ട് ആണ് പറയുന്നത് ആ കുട്ടിക്ക് സൈസ് കൂടിയത് കൊണ്ടത് തീരെ ചെറുതായിരിക്കും ഞാൻ പറഞ്ഞ സൈസ് വളരെ ചെറുതാണ് അതുകൊണ്ടുതന്നെ അത് ആ കുട്ടിക്ക് പാകമായിരിക്കത്തില്ല അതുകൊണ്ട് ഈ ഓഡറ് റദ്ദാക്കണമെന്ന് ഞാനുദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അത് ഡെലിവറായ ഇല്ലായെങ്കിലത് റദ്ദാക്കിയേക്കണേ അതിന് വന്നുകഴിഞ്ഞാലത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട്